ഒരു വിനോദസഞ്ചാരിയുടെ കൂടെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു വളരെ നല്ല അനുഭവം തന്നെ ആയിരുന്നു കാരണം നമ്മൾ ഗൈഡ് ചെയ്യുന്നതിന് അനുസരിച്ചു തന്നെ അവരത് അവരത് ചെയ്യുന്നുണ്ടായിരുന്നു എത്ര മണിക്കാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എത്ര മണിക്കാണോ നമ്മളത് അവസാനിക്കുക അതൊക്കെ നമ്മൾ പറയുന്നതിനനുസരിച്ച് തന്നെയാണ് അവർ ചെയ്യുക പിന്നേ മോർ യൂസ്ഫുളെന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഭാഷ തന്നെയായിരുന്നു അവർക്കും പിന്നെ അവരിൽ നിന്നും നമ്മൾക്ക് കുറെ അനുഭവങ്ങൾ കിട്ടി അവരുടെ ഭാഷ അവരുടെ സ്ഥലത്തുണ്ടാവുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ സാധിച്ചു കുറെ കുറെ അറിവുകൾ അവരും തന്നു നമ്മൾ നമ്മളിൽ നമ്മുടെ അറിവ് അവർക്കും പകർന്നു കൊടുക്കാൻ സാധിച്ചു അവരുടെ അറിവ് നമുക്കും നേടാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഗൈഡാവുക എന്നു പറയുമ്പോൾ ഒരു കൂട്ടം ആളുകളുടെ തലവൻ എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക കാരണം ആ ഒരു ഗൈഡ് ആ ഒരു കൂട്ടത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ ഗൈഡിനായിരിക്കും കാരണം ആ ഒരു സഞ്ചാരികൾക്ക് ഒരു വിനോദസഞ്ചാരികൾക്ക് ആ വിനോദയാത്ര എത്രത്തോളം മനോഹരമാക്കാൻ സാധിക്കുമോ അതിൻ്റെ ഫുൾ ക്രെഡിറ്റും അത് എത്രത്തോളം മനോഹരമാക്കി കൊടുക്കാൻ പറ്റുമോ അത് എന്നത് ഒരു ഗൈഡിൻ്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ടുതന്നെ ഒരു ഗൈഡാവുക എന്നത് വളരെ വലിയൊരു ടാസ്കുമാണ് നല്ലൊരനുഭവം തരുന്നതാണ്